നമ്മുടെ കോഴിക്കോട് ജില്ലയില് ഒരുപാട് പരിസ്ഥിതീക പ്രശ്നങ്ങള് നിലനിൽക്കുന്നുണ്ട് പക്ഷെ അതിനെയൊക്കെ ഇതാക്കിയിട്ട് ഗവൺമെൻറ്റ് നമുക്ക് ഒരു ടീമിനെ ഇറക്കിയിട്ടുണ്ട് എന്താ വെച്ചാൽ ഹരിത കർമ്മ സേനാന്ന് പറഞ്ഞിട്ട് കേ കോഴിക്കോട് ജില്ലയില് മാത്രവല്ല കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും അവരുണ്ട് അവരുടെ സാനിധ്യമുണ്ട് അപ്പോൾ അവര് മാസം എല്ലാ മാസവും വീടുകളിൽ വന്ന് പ്ലാസ്റ്റിക് അതുപോലൊള്ള പ്ലാസ്റ്റിക്കാണ് കൂടുതലായിട്ടും അവരത് എടുത്തോണ്ടുപ്പോയി എടുത്തോണ്ട് പോകലാണ് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഒരുവിധം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോ ഇത് കുറഞ്ഞിട്ടുണ്ട് മാലിന്യം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരത് കൊണ്ടുപോയിട്ട് കേറ്റി അയക്കാണ് ചെയ്യുന്നെ വേറെന്തോ പ്രൊഡക്റ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കത് എന്താ പറയുക ആ അതിൻ്റെ ഇത് കുറയും പിന്നെ അതിന് അവർക്ക് അതിൻറ്റേതായ വെല്ലുവിളികളുണ്ട് ചിലവര് പ്ലാസ്റ്റിക് കൊടുക്കുലാ ചെലതെന്നാൽ ഇങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുക്കും അപ്പോൾ അവർക്ക് അങ്ങനത്തെയൊക്കെ ഇതുണ്ട് പിന്നെ കൂടുതലായിട്ടും ഇപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫൈൻ ഒക്കെയുണ്ട് അപ്പോൾ കൂടുതലായിട്ടും ഇപ്പോൾ പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടിരിക്കയാണ് അധികം മാലിന്യങ്ങളൊന്നും വെരുന്നില്ല പിന്നെ കാലാവസ്ഥ വ്യതിയാനത്തിനൻസരിച്ച് ഓരോ പ്രശ്നങ്ങള് വേറെ ഇണ്ടാവാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ജില്ലയില് ഇപ്പോൾ ഉള്ള നിലവിലുള്ളത് പ്രശ്നങ്ങള് അധികം പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ പ്രശ്നം തന്നെയാണ് കൂടുതലായിട്ടും നമുക്ക് വരുന്നത് അതിപ്പോൾ കൊ ഇവ് ഈ ടീമ് വന്നതിനുശേഷം നമുക്ക് കുറവായിട്ട് ഉണ്ട് ആ പ്രശ്നം